കേരളത്തിലെ കുട്ടികളുടെയും യുവാക്കളുടെയും വിദ്യാഭ്യാസം സാംസ്കാരിക വളർച്ചയിൽ കലക്കൊരു വലിയ കല അല്ലെങ്കിൽ കരകൗശല കല കരകൗശലത്തിൻ്റെ വലിയ ഒരു വലിയൊരു പങ്കുതന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ കേരളത്തിലെ കുട്ടികളെന്ന് പറയുമ്പോൾ ഒര് എനിക്കു തോന്നുന്നു അവര് ഏറ്റവും കൂടുതല് വിദ്യാഭ്യാസത്തില് ശ്രദ്ധിക്കുന്ന കുട്ടികളാണ് അപ്പോൾ വിദ്യാഭ്യാസത്തില് ശ്രദ്ധിക്കുന്നത് മാത്രമല്ല നമുക്കിപ്പം അറിയാം കേരളം വിദ്യാഭ്യാസം ത്തില് തന്നെ മികച്ച് നിൽക്കുന്ന ഒര് സംസ്ഥാനം തന്നെയാണ് അപ്പോൾ അതിന് പുറമെ കുട്ടികളുടെ ഈ പഠിത്തം മാത്രമല്ല മറ്റുതരത്തിലുള്ള കഴിവുകളൊക്കെ വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നല്ലതാണ് അതിനുവേണ്ടി ഈ കര കൗശലയും കലയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ക്ലാസ്കള്ക്കൊക്കെ അവരെ സജ്ജമാക്കണം എന്നുതന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അവരുടെ ഈ സർഗാത്മകത അതായത് ഈ വിദ്യാഭ്യാസം മാത്രമല്ല അതിന് പുറമെ ഉള്ള അവരിലുണ്ടാവുന്ന ഈ കഴിവുകളൊക്കെ വളർത്തിയെടുത്താൽ എടുക്കാനും സർഗാത്മകത വളർത്തിയെടുക്കാനുമൊക്കെ അതിന് സാധിക്കും എന്നുതന്നെയാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ അവർക്ക് ഈ പഠിത്തം നല്ല രീതിയില് പഠിക്കണമെ മാത്രമല്ല അവർക്ക് ഒര് അധികമായി ഒര് കല ഉണ്ടെങ്കിൽ ഇപ്പോൾ വരക്കാനായാലും വരക്കാനായാലും എഴുതാനായാലും ഈ കരകൗശല വസ്തുക്കളുണ്ടാക്കാനായാലും അധികമായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അത് അവരുടെ അവരുടെ ഒരു അവർക്ക് ഒരു അഭിമാനമാണ് അവരെ അവരുടെ രക്ഷിതാക്കൾക്കും ഒരഭിമാനകരമാണ് അതുപോലെതന്നെ ഇങ്ങനുള്ള കരകൗശല വസ്തുക്കളുണ്ടാക്കി അവർക്ക് വിൽക്കാം വിറ്റ് അവർക്ക് അതിലൂടെ ഒര് സമ്പത്ത് സമ്പ ത്തിൻ്റെ ഒര് ജോലി ഇല്ലേ ഒര് വ്യവസായം കണ്ടുപിടിക്കാൻവേണ്ടി സാധിക്കും അപ്പം ഇതൊക്കെ പഠിക്കുന്നത് അവർക്ക് നല്ലകാര്യം തന്നെയാണ് അതുപോലെതന്നെ ഒര് വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾക്ക് അതിലോട്ടുള്ള ഒരു ഒരു താൽപ്പര്യം കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് കൂടുതലായും കായികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് കുടുതലായിട്ടും അവർക്ക് താൽപ്പര്യം അപ്പോൾ അതിൻറ്റൊരു താൽപ്പര്യകുറവ് ഒരു വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അത് അതുപോലെതന്നെ ഈ രക്ഷിതാക്കള് ഇപ്പോൾ കുട്ടികള് പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നവര് കാര്യമുണ്ട് അതും അതിനൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഒര് രണ്ട് കാര്യങ്ങള് മാത്രമെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ നമുക്ക് കൊടുക്കാനുള്ള സമ്പത്ത് നമ്മുടെ ഓരോ സ്കൂളുകളിലും ഉണ്ട് അതുപോലെതന്നെ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ധ്യാപകരൊക്കെ നമ്മുടെ ഓരോ സ്കൂളുകളിലുണ്ടാകും അങ്ങനെ ഈ കരകൗശലത്തിൻ്റെയും കായിക കലയുടെയൊക്കെ പങ്ക് ഇവർക്ക് ഏറ്റവും കൂടുതല് തന്നെയാണ്